സോഷ്യൽ മീഡിയ ഈ ഒരു കുറച്ചു കാലമായിട്ട് ഒരു അഞ്ച് ആറ് വർഷം അല്ല അഞ്ച് ഒരു അഞ്ച് അല്ല ഒരു മിനിമം ഒരു ഒരു ആറ് ഏഴ് വർഷത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ ആയിട്ട് വളർച്ച നമ്മൾ എന്നും ദിനം പ്രതി കണ്ടു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഒരു കാര്യം പറഞ്ഞാൽ കോവിഡ് എന്ന മഹാമാരി വന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസുകൾ അതുവരെ അതുവരെ ആർക്കും ഒരു പരിചിതമല്ലാത്ത ഒരു കാര്യമായിരുന്നു ഓൺലൈൻ ക്ലാസ് അത് കോവിഡ് എന്ന മഹാമാരി വന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറാൻ സാധിച്ചു അത് ഇന്നും അതുകൊണ്ട് ഒരുപാട് നേടിയവരൊക്കെ ഒരുപാടാണ് അപ്പം സാങ്കേതികമായ വിദ്യകളുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപെടുന്ന രീതിയിൽ വളരെ ഏറെ നമുക്ക് എളുപ്പം ആക്കിയിട്ടുണ്ട് ആളുകൾ കൂടുതലും അടുക്കാനും അടുക്കാൻ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തുള്ളവരെ കാണാനും കണ്ടു കൊണ്ട് സംസാരിക്കാനും അയാളുമായിട്ട് സംസാരിക്കാനും നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ഭാഷ നമ്മുടെ കൾച്ചറൊക്കെ അവർ അറിയിക്കാനും അവരുടെ കൾച്ചർ അവരുടെ ഭാഷയൊക്കെ നമുക്ക് നമുക്ക് കാണാനുമൊക്കെ വളരെ ഒരു വലിയ ഒരു ഒരു റോള് തന്നെയാണ് സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെ ചില പ്രതികൂല ഫലങ്ങൾ ഉറപ്പായിട്ടും ഏറ്റവും ഇതൊക്കെ തന്നെയാണ് ഇത് മാത്രമല്ല മുന്നോട്ട് ഒരുപാട് പേർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാതെ അവരുടെ ഓരോ അവരെ ഓരോ സ്വയം സ്വയം സ്വയംസംഭരണ സാധനങ്ങൾ ഇതിലൂടെ പ്രമോഷൻ കൊടുത്ത് വിറ്റ് അഴിക്കുന്നവരുമുണ്ട് അതായത് ഇത് ഉപയോഗിച്ചു പൈസ ഉണ്ടാക്കുന്നവരും ഇത് ഉപയോഗിക്കാൻ അറിയാത്തവർ കിട്ടുമ്പോൾ ഇത് അതിൻ്റെ മറ്റൊരു മാക്സിമം എഫേർട്ടും എല്ലാം എടുത്തിട്ട് നല്ല രീതി ഉപയോഗിക്കുന്ന ഒരുപാട് പേര് നമ്മളെ മുന്നിലുണ്ട് അപ്പം ഇതൊക്കെ വലിയ ഒരു എക്സാമ്പിള് തന്നെയാണ് നമ്മൾക്ക് മുമ്പിൽ കാണുന്നത് കാരണം ഇതെങ്ങനെ ഉപയോഗിക്കണം ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഒരുപാട് ദോഷങ്ങളൂണ്ട് ഇപ്പം ഗുണങ്ങൾ മാത്രമല്ല ഒരുപാട് ദോഷങ്ങളൂമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇത് ഉപയോഗിച്ചു പൈസ ഉണ്ടാകുന്ന ഒരുപാട് പേര് നമുക്ക് അറിയാം അപ്പം ഇതൊക്കെ ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം എത്ര കാലം മുന്നോട്ട് ഇനി പോയിക്കൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ ഇപ്പോഴും വളർന്നു കൊണ്ടിരിക്കുക ഇൻറർനെറ്റ് സോഷ്യൽ മീഡിയ അപ്പം അത് ഒരിക്കലും പിന്നോട്ട് പോകാൻ പോവുന്നില്ല അപ്പം ഏറ്റവും മികച്ചതാകുമ്പോൾ നമ്മൾ അതിന് അനുസരിച്ചു എപ്പോഴും മികച്ചതായി മികച്ചാതായി മുന്നോട്ട് നിൽക്കാനായി സാധിക്കുക ചെയ്യാവുള്ളൂ ഒരിക്കലും നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് അപ്പം ഇതിനൊക്കെ വലിയ ഒരു എക്സാമ്പിൾ ആണ് ഇതിനൊക്കെ ഒരു വലിയ ഒരു മറുപടിയായിട്ടാണ് ഈ ഈ ഓരോ സാങ്കേതിക കണ്ടുപിടിത്തങ്ങൾ ഞാൻ എപ്പോഴും കാണുക അപ്പം മുന്നോട്ട് ഇനി എത്ര വർഷം കഴിഞ്ഞാലും എത്ര വർഷം മുന്നോട്ട് പോയാലും സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം പല ആൾക്കാർക്കും ഇവിടെ നില നിന്ന് പോകാനും പച്ച പിടിക്കാനുമൊക്കെ സാധിക്കും